നഗരത്തിലെ പത്രങ്ങളിൽ ഒരിക്കലും ഗ്രാമത്തിലെ വാർത്തകൾ ശരിയായിട്ടല്ല കാണിക്കുന്നത് എന്നുള്ളതിന് എനിക്ക് അഭിപ്രായമുണ്ട് കാര്യമെന്നുവച്ചാല് ഒരുപാട് ജനങ്ങളഅ പട്ടിണിയിലും പരിവട്ടത്തിലുമൊക്കെ ഗ്രാമപ്രദേശങ്ങളിൽ കഴിയുന്നുണ്ട് അവരെ പറ്റിയൊന്നും യഥാർത്ഥത്തിലുള്ള വാർത്തകളൊരിക്കലും പുറത്തു വരുന്നില്ല അവരുടെ ജീവിത രീതിയെ പറ്റിയോ അവരുടെ ശൈലി ജീവിത രോഗാവസ്ഥകള് ഒന്നും സമൂഹത്തിന് വെളിയിൽ വരാതെ വരാൻ സമൂഹത്തിന് മുമ്പിൽ വരാതെയോ ഭരണാധികാരികളുടെ മുമ്പിലെത്താതെയോ തടസ്സപ്പെടുന്നുണ്ട് അത് മാധ്യമങ്ങളതിന് വലിയ പ്രാധാന്യം നൽകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായം മാധ്യമങ്ങളിൽ കാണിക്കേണ്ട പല കാര്യങ്ങളും ഗ്രാമപ്രദേശങ്ങളിലാണ് ഗ്രാമപ്രദേശങ്ങളിലാണെങ്കിൽ സമൂഹത്തിൽ കാണിക്കേണ്ടുന്ന പല കാര്യങ്ങള് ഗ നടക്കുന്നില്ല ആ പ്രത്യേകിച്ച് റൂറൽ ഏരിയ അതായത് ആദിവാസി സമൂഹങ്ങളിലൊക്കെ നടക്കുന്ന കാര്യങ്ങളൊന്നും ഒരിക്കലും വെട്ടത്ത് വരാതെ പലതും മൂടിയ്ക്കപ്പെടുന്നുണ്ടെന്നുള്ള ഒരു അഭിപ്രായത്തിലാണ്

പലതും മ മൂടിവയ്ക്കപ്പെടുന്നുണ്ട് ആദിവാസി സമൂഹങ്ങളിലെ സ്ത്രീകൾ അല്ലെങ്കിൽ കുട്ടികളൊക്കെ അനുഭവിക്കുന്ന അവഗണനകളും മറ്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ ജനമധ്യത്തിൽ തുറന്നുകാട്ട് കാട്ട് കാണിക്കേണ്ടവയാണ് അത് കാണിക്കാതെ അത് മുടിവയ്ക്കുന്നത് ഒരു മാധ്യമ ത്തിന് ചേർന്നതല്ല നഗരത്തിലെ പത്രങ്ങളിലെപ്പോഴും രാഷ്ട്രീയക്കാരുടെയും മറ്റ് ക ക്കെ വാർത്തകളാണ് വരാറുള്ളത് അത് പാവങ്ങളുടെ പാവപ്പെട്ട മനുഷ്യരുടെ ആവശ്യങ്ങളോ അല്ലെങ്കില് ഒന്നും സത്യസന്ധമായിട്ട് ചിത്രീകരിക്കപ്പെടുന്നില്ല ഒരിക്കലും അവർക്ക് അവരുടെ ആവശ്യങ്ങളടിസ്ഥാന സൗകര്യങ്ങളൊക്കെ ഇല്ലാതെ ഓരോ ഗ്രാമങ്ങളിലെത്രയോ പേര് കഴിയുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളെന്ന് പറയുമ്പോള് ആശുപത്രികള് സ്കൂളുകള് പാലങ്ങള് ചെറിയ ചെറിയ പാലങ്ങള് ഇതൊന്നും ഇല്ല അത്യാവശ്യം ഇപ്പോൾ തന്നെ ഒരു വാർത്തയില് കണ്ടു ഒരു ഒരിടത്ത് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിലുണ്ടായ പാലം തകർന്ന് പോയിടത്ത് കുട്ടികൾ എത്രയോ കിലോമീറ്ററുകളോളം പുഴകള് പുഴകൾ മുറിച്ച് കടന്ന് വേണം സ്കൂളിലെത്താനക്കൊണ്ട് ഇതൊക്കെ ഇപ്പോഴിപ്പോഴാണ് സമൂഹമാധ്യമങ്ങളിൽ വരുന്നത് ഓരോ തരത്തുള്ള ഉരുൾപൊട്ടലുകളും കാര്യങ്ങളും ഉണ്ടാകുമ്പോഴ് അതിനെതിരെ അതിന് മുമ്പ് തന്നെ പത്ര മാധ്യമങ്ങളിൽ അതിനെപ്പറ്റി വാർത്ത കൾ വരികയാണെങ്കിലൊരു പക്ഷെ അത് അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാനോ അല്ലെങ്കിലവർക്കെതിരെ അതിന് അവർക്ക് വേണ്ടി അതിന് എന്തെങ്കിലും നടപടികളെടുക്കുന്നതിനോ സാധിക്കും അതിന് വേണ്ടിയിട്ട് പത്രമാധ്യമങ്ങളൊരിക്കലും മുന്നിട്ട് നിൽക്കുന്നില്ലാന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായം പാ പാ റൂറൽ ഏരിയായിലുള്ള കുട്ടികളൊക്കെ ഒരു ഗർഭിണികളൊക്കെ പ്രത്യേകിച്ച് ഗർഭിണികള് പിന്നെ സമയത്ത് മരുന്ന് കിട്ടാതെയും ഒക്കെ വളരെ ബുദ്ധിമുട്ടി പ്രസവിക്കേണ്ടക്ക ഒരു വീടുകളിൽ പ്രസവിക്കുന്നൊരവസ്ഥ അല്ലെങ്കിൽ ഗർഭാവസ്ഥയിൽ മരിച്ച് പോകുന്ന അവസ്ഥ കുട്ടികൾ മരണപ്പെടുന്ന അവസ്ഥകളൊക്കെ ഉണ്ടാകുന്നുണ്ട് ഇതൊക്കെ അധികാരികളുടെ മുമ്പിലെത്തിക്കാൻ പത്രമാധ്യമങ്ങള് പത്രമാധ്യമങ്ങൾക്കാണ് സാധിക്കുന്നത് അവർ അതിന് മുൻ അതിന് സാ അതിനവരതിന് ശ്രമിക്കാത്തിടത്തോളം ഗ്രാമങ്ങളിൽ ഗ്രാമീണ വാർത്തകൾ സത്യം ഒരിക്കലും പത്രത്തിൽ വരുന്നില്ല എന്ന് വേണം കരുതാനെക്കൊണ്ട് നമ്മുടെ സമൂഹത്തില് പാവപ്പെട്ടവരെന്നോ അല്ലെങ്കില് അല്ലങ്കിൽ സാ നഗരത്തില് താമസിക്കുന്നവരെന്നോ ഗ്രാമത്തില് താമസിക്കുന്നവരെന്നോ വേർതിരിവില്ലാതെ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനെപ്പറ്റി വാർത്ത വന്നാൽ മാത്രമേ നമ്മുടെ ജന ജനങ്ങൾക്ക് എല്ലാ എല്ലാ ത സമ എല്ലാ തുറകളിലുമുള്ള ജനങ്ങൾക്ക് അവരവരുടേതായ ഒരു രീതി അവരവരുടേതായ സ അന്തസ്സില് ജീവിക്കാൻ പറ്റത്തുള്ളു ആശുപത്രിയൊക്കെ ആശുപത്രികളില്ലാതെ പ്രാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളൊന്നുമില്ലാതെ ഒക്കെ എത്രയോ എത്രയോ ഗ്രാമപ്രദേശങ്ങൾ കുഗ്രാമങ്ങളായിട്ട് കഴിയുന്നുണ്ട് അവിടെയൊക്കെ വെള്ളമില്ല വൈദ്യുതിയില്ല ഒക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ ജനങ്ങൾ കഴിയുന്നുണ്ട് അതൊക്കെ സമൂഹത്തിൻ്റെ മുന്നിലെത്തിക്കുകയെന്നു പറഞ്ഞാൽ അധികാരികളുടെ മുൻപിൽ എത്തിക്കാനോ ഈ പത്രമാധ്യമങ്ങൾക്ക് മാത്രമേ കഴിയാത്തുള്ളു അവരത് സത്യസന്ധമായിട്ട് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ ഒരഭിപ്രായം